ഹലോ ഹലോ ആ ആ അതെ പറഞ്ഞോളു ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഇതൊണ്ട് റിസോർട്ടും കാര്യങ്ങളും ഒക്കെയുണ്ട് ഫുഡ് ഉണ്ട് അക്കോമഡേഷനുണ്ട് എല്ലാം ഉണ്ട് ഇല്ലില്ല ഞങ്ങൾ ഞാൻ ഞങ്ങൾക്കൊരു പാക്കേജ് ഉണ്ട് ആ പാക്കേജിൽ ബുക്ക് ചെയ്യാം അതിപ്പം സ്ഥലത്തിനനുസരിച്ചാണുള്ളത് ഇങ്ങോട്ടിപ്പം കേരളത്തിൻ്റെ കൾച്ചറെന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടം അങ്ങനൊക്കെ വരുന്നുണ്ട് മോഹിനിയാട്ടം കുച്ചിപ്പുടി കഥകളി അങ്ങനൊക്കെ ആ അതൊക്കെ കാണണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് വേണ്ടി വരും കാരണം സാധാ അക്കോമഡേഷന് പുറമേ ഫുഡും എന്ന് വെച്ചാലിപ്പം പാക്കേജ് എടുക്കാണെങ്കിൽ അതിന് അനുസരിച്ചായിരിക്കും ഫുഡ് ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് വേണം അതിൻ്റെ ഒക്കെ ഇപ്പം വെജിറ്റേറിയൻ ആണെങ്കിൽ അങ്ങനത്തെ അല്ലേ നോൺ ആണേ അത്

ആ ഇപ്പം

ആ ഓക്കെ ഇപ്പം ഉത്സവം വന്നിട്ട് ഇപ്പം ശബരിമല സീസണാണ് ഉള്ളത് അപ്പം നിങ്ങൾക്കതിൽ ഇപ്പം ബോയിസാണങ്കിലേ പോവാൻ പറ്റുള്ളൂ ഗേൾസ് കുഞ്ഞു മക്കൾക്കേ പോവാൻ പറ്റുള്ളൂ നിങ്ങൾക്കതിന് വ്രതൊക്കെ എടുത്തിട്ട് വേണം പോവാൻ പിന്നെ തൃശൂർ പൂരാണ് വരുന്നത് ആ പിന്നെ രണ്ട് ഒരു ഒരു മാസം മുമ്പായിരുന്നു നമ്മുടെ പുലിക്കളിയുണ്ടായത് അത് കഴിഞ്ഞു അതും അതും തൃശൂർ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞു അപ്പം നമുക്ക് അതിന് പങ്കെടുക്കാൻ പറ്റില്ല ആ ഓക്കെ അപ്പം നിങ്ങക്കേതൊക്കെ സ്പോട്ട് കവറ് ചെയ്യണമെന്ന് പറയാണെങ്കിൽ നമുക്ക് പാക്കേജ് പറയാൻ പറ്റുള്ളു ഇപ്പം ഓൾ കേരള ആണെങ്ങിൽ ഒരു വൺ ഡേക്കാണെങ്കിൽ ഏഴായിരത്തി സംതിങ്ങ് വരും അപ്പം ഒരാക്കൊരു ഒരു ഹവറ് വെച്ചിട്ടാണ് നോക്കാ ആ ഇപ്പം എന്തായാലും ട്വന്റി ഫോർ ഹവേഴ്സ് എന്തായാലും ഇതാക്കാൻ പറ്റില്ലല്ലോ ഒരു ട്വൽവ് ഹവേഴ്സ് മാക്സിമം നോക്കാം മാക്സിമം റേറ്റ് ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ ഓരോ പാക്കേജിനനുസരിച്ച് ഞാൻ വാട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതിയോ ഓ പിന്നെ എന്താ പറയാ ഫുഡൊക്കെ നോണാണോ വേണ്ടത് ഇപ്പം സീ ഫുഡ് ഉണ്ട് സീ ഫുഡുണ്ട് പിന്നെ എന്നു വെച്ചാൽ നാടൻ ഫുഡുകളുണ്ടാവും നാടൻ കപ്പ കഞ്ഞി അങ്ങനത്തെ അങ്ങനത്തേക്കെ ഉണ്ടാവും

ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പം ഇപ്പം നിങ്ങൾക്ക് കഥകളി മോഹിനിയാട്ടം അങ്ങനെ എന്തേലുവൊക്കെ വേണോ

അപ്പം നമുക്ക് ആലപ്പുഴയൊരു സ്പോട്ടാ നല്ല സ്പോട്ടാണ് ആലപ്പുഴ നോക്കുന്നത് നന്നായിരിക്കും ആ ഹൗസ് ബോട്ടിങ്ങൊണ്ട് ആലപ്പി പോയിട്ട് നമുക്ക് ആ അതെ അതെ നമുക്ക് വേണേൽ ഹൗസ് ബോട്ടി തന്നെ സെറ്റ് ചെയ്യാം എല്ലാം പിന്നെ ക്യാമ്പ് ഫയർ അങ്ങനെ എന്തെങ്കിലും വേണോ ക്യാമ്പ് ഫയർ എന്തേലും വേണോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ നിങ്ങൾ ഞാൻ വാട്സ്ആപ്പ് അതെ അതെ ഈ ഈ വാട്സ്ആപ്പ് നമ് ആ ഓക്കെ ഓക്കെ ഞാൻ ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് ചെയ്യാം